കുട്ടികളുടെ പഠനത്തിൽ വായ്പ്പയെ കുറിച്ചും അതേപോലെ ആദായത്തെ കുറിച്ചിട്ടൊക്കെ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും അതവർക്ക് അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എത്രത്തോളം നല്ലതാണ് വായ്പ്പ എടുക്കുന്നതൊക്കെ എത്രത്തോളം നല്ലതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ അത് ഏതൊക്കെ മുഖേനയാണ് മുൻഗണന ഉള്ളത് എന്നതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും ആ നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ അതിൽ ഏതൊക്കെ കാര്യത്തിൽ കാര്യത്തിൽ അതായത് കൃഷി വിദ്യാഭ്യാസം ഇടത്തരം ആ സംരംഭങ്ങൾ അങ്ങനെ ഏതിലൊക്കെയാണ് കൂടുതലങ്ങാണ്ട് വായ്പ്പ എടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ പഠനത്തിലൂടെ തന്നെ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അവരൊരു മെച്യൂരിറ്റി എത്തുമ്പോൾ അവർക്ക് എടുക്കണം എന്നു തോന്നുകയാണെങ്കിൽ വായ്പ്പയെടുക്കണം എന്നു തോന്നുകയാണെങ്കിൽ അതിനു മുൻപു തന്നെ അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ അവർക്ക് ആകെ പൈസ സേവ് ചെയ്യാവുന്നതിലും നല്ലൊരു കാര്യം തന്നെയാണ് ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് രേഖകളില്ലാതെയും എടുക്കണ വായ്പ്പയെ കുറിച്ചും അതേപോലെ രേഖകൾ വെച്ചുകൊണ്ട് എടുക്കണ വായ്പ്പയെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഏതൊക്കെ സംരംഭങ്ങൾ മുഖേനയാണ് വായ്പ്പ കുറച്ചു പലിശക്ക് ലഭിക്കാഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ ബോധം ബോധനം കൊടുക്കുന്നത് നല്ലതു തന്നെയാണ് അതുപോലെ നമുക്ക് ആദായത്തിലെങ്ങനെ സാധനങ്ങൾ മേടിക്കുക ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം കുട്ടികളിൽ പഠനത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലത് നല്ലതാന്ന്